മലയാള ഭാഷയെപ്പറ്റി പറയുകയാണെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ മലയാള ഭാഷ എന്നൊരു ഭാഷ ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല അതിൽ കൂടുതലായിട്ട് തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും വളരെയധികം ഒരു എടുത്തുചാട്ടം അതായത് എടുത്തു നിൽപ്പ് നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും സാധിക്കുമായിരുന്നു ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഏകദേശം മലയാള ഭാഷ എൺപത് ശതമാനത്തോളം തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും കൂട്ടിച്ചേർന്ന് ഇടകലർന്ന ഒരു ഭാഷയായിട്ടായിരുന്നു അതിനുശേഷം എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് ഒരു മലയാള ഭാഷയെ ക്രോഡീകരിച്ച് അതിന് തക്കതായ ഒരു ഇത് കൊടുത്തത്തിന് ശേഷമാണ് മലയാള ഭാഷ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയത് എന്നാലും മലയാള ഭാഷ മലയാള ഭാഷയെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് തമിഴാണ് തമിഴിൽ കുറേ ഒരു എൺപത് ശതമാനത്തോളം മലയാള ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും